നാം നമ്മുടെ ജീവിതത്തില് വളരെയധികം പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് അധികം മനുഷ്യരും യൂസ് ഉപയോഗിക്കുന്ന ഒരു വാഹന മാർഗ്ഗമാണ് അതത് യാത്രാ മാർഗ്ഗമാണ് ബൈക്ക് മാർഗ്ഗം എന്നുള്ളത് അപ്പോള് ഈ ബൈക്ക് മാർഗ്ഗങ്ങളിലൂടെ അധികം മനുഷ്യരും യൂസ് ചെറിയ ടു വീലർ ബൈക്കുകളായാലും അതിൽ ഫസ്റ്റ് ഏർഡ് പോലത്തെ ഫസ്റ്റ് എയ്ഡ് അല്ലാതെ ടൂ ബൈക്കിൻ്റെ റിപ്പെയറിന് ആവശ്യം വരുന്ന ടൂളുകൾ എല്ലാവരും എടുക്കാറുണ്ട് അതിൽപെട്ടതാണ് സ്പാനറ് അല്ലെങ്കില് സ്പാൻഡർ ആയാലും അല്ലെങ്കില് മറ്റേ മെക്കാനിക്കൽ ഐറ്റംസായാലും അങ്ങനെ ധാരാളം ഐറ്റംസ് സ്പാനെറ് പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ ബാറ്ററി ബാറ്ററി ഡൗൺ ആയാല് അതു റെഡിയാക്കാനുള്ള സാധനങ്ങള് പഞ്ചറായാല് അത് റെഡിയാക്കാന് അങ്ങനെ ആൾക്കാർക്കനുസരിച്ച് റെഡി അതിൻ്റെ സാധനങ്ങള് എടുക്കാറുണ്ട് ഇനിയിപ്പോള് അങ്ങനെ ധാരാളം പ്രശ്നങ്ങള് വരാറുണ്ട് ഇനിയിപ്പോള് ബൈക്കിന്റെ മെക്കാനിക്കൽ പ്രശ്നങ്ങള് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാമെന്നു വച്ചാല് സ്വാഭാവികമായും നമ്മള് അടുത്തുള്ളൊരു ബൈക്ക് മെക്കാനിസ്റ്റിന് നമ്മള് ഏതൊരു നാട്ടിലായിരുന്നാല് ആ നാട്ടിലും ബൈക്ക് പലരുടെയും നമ്പറുകൾ നമ്മുടെ കയ്യില് വേണം അങ്ങനെയുണ്ടെങ്കില് നമ്മല് ഏതൊരു നാട്ടില് പോയി പെട്ടാലും നമുക്ക് അതിനെക്കൊണ്ടൊരു ഉപകാരങ്ങൾ ഉണ്ടാവും കാരണം അവർക്കു വിളിച്ചു പിന്നെ വിളിച്ചു വരാൻ പറഞ്ഞാലൊക്കെ മതി പിന്നെ എന്ത് ബൈക്ക് മെക്കാനിക്കുകളുടെ നമ്പര് ഇനിയിപ്പോള് ആരുടെയടുത്തും ഇല്ലെങ്കില് ഗൂഗിൾ അടുത്തുള്ള ഗൂഗിളിലൂടെ നമ്പർ എടുത്തിട്ട് ആളുകളുടെയടുത്തു സംസാരിച്ചിട്ട് അടുത്തുള്ള ബൈക്ക് മെക്കാനിസ്റ്റിൻ്റെ നമ്പര് വാങ്ങിയിട്ട് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചിട്ട് അതിനുള്ള മാര്ഗം നമുക്കു ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ നമ്മള് നാം സ്വയം തന്നെ എന്തെയ്യണം അതിനുള്ള മാര്ഗം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണു നേരെയാക്കുക എന്നുള്ളതു നാം കണ്ടറിഞ്ഞ് പഠിച്ചതിനു ശേഷം ആവശ്യ സാധനം നമുക്കു കയ്യിൽവച്ച് ബൈക്കുൾക്കു വരുന്ന വഴി പ്രശ്നങ്ങള് വല്ലതും സംഭവിച്ചാല് നാം തന്നെ അതു നേരെയാക്കാവുന്നതാണ് പിന്നെ അടുത്തൊരു ചർച്ച വിഷയെമെന്നു പറയുന്ന ബൈക്ക് യാത്രകള് എപ്പോഴും നമ്മുടെ ബൈക്കില് തകരാറു സംഭവിക്കാറുണ്ടോ എന്നു ചോദിച്ചാല് സ്വാഭാവികമാണ് ഏതൊരു മനുഷ്യനും ബൈക്കുകളുള്ള പോകുന്ന അധിക മനുഷ്യർക്കും തൻ്റെ ബൈക്കിനുള്ള പ്രശ്നങ്ങളൊക്കെ ഇടയിൽ സംഭവിക്കാം അതു സ്വാഭാവികമായി വരുന്നതാണല്ലോ സ്വാഭാവികമായ കാര്യങ്ങളാണല്ലോ എത്രത്തോളമെന്നുവച്ചാല് ഈ അടുത്ത് ഞാന് യാത്ര ചെയ്യുന്നതിന് എൻ്റെ സ്കൂട്ടി ഒരു മൈസ്ട്രോ സ്കൂട്ടിയായിരുന്നു ആ സ്കൂട്ടിയുടെ ടയര് പൊട്ടി ഞാൻ ടയര് പൊട്ടി എന്നു പറഞ്ഞാല് അറിഞ്ഞിരുന്നില്ല ഞാനങ്ങനെ പോകുന്ന വഴിക്കായിരുന്നു സംഭവം ഉണ്ടായത് എന്നിട്ടു ഞാന് അടുത്തുള്ള കുറച്ച് ആൾക്കാരുമായി ബന്ധപ്പെട്ടു അവര് അവര് വഴി അങ്ങനെ അവര് ആദ്യം സഹായിക്കാമെന്നു പറഞ്ഞു അവര് പോയി പിന്നെ ഞാൻ ഗൂഗിളില്നിന്ന് നമ്പർ എടുത്ത് കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു അവര് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഞാൻ സഹായിക്കാമെന്നു പറഞ്ഞവര് ഒരാളെയുംകൊണ്ടു വന്നു പിന്നെ അങ്ങനെ അവിടുന്ന് അവരുടെ കട തുറന്നിട്ട് പുതിയ ബൈക്കിന്റെ ഒരു സെക്കനെന്റ് ടയറെടുത്തു വയ്ക്കുകയാണു ചെയ്തത് അങ്ങനെ അനുഭവങ്ങള് സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകുന്നതു പോലെ എനിക്കും യാത്രകൾക്കിടെ സംഭവിച്ചിട്ടുണ്ട് അതും പിന്നെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ എത്തുമ്പോൾ എല്ലാവരും അവ എല്ലാവരും സ്വയം തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പഠിക്കണം കാരണം ഏതൊരു അവസരത്തിലാണ് എവിടെ വെച്ചാണു നമ്മുടെ വാഹനങ്ങള് മനുഷ്യരല്ലല്ലോ വാഹനങ്ങളില് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണു പ്രശ്നങ്ങളുണ്ടാവുകയെന്ന് ആർക്കും അറിയില്ലല്ലോ അപ്പോള് എവിടെയൊക്കെയാണു പ്രശ്നങ്ങള് ഉണ്ടാവുകയെന്ന് അറിയാൻമേലാത്തതുകൊണ്ട് എല്ലാം ഒരു അതിൻ്റെ ഒരു ബേസിക് സാധനങ്ങള് എന്തൊക്കെയാണ് എവിടൊക്കെയാണ് മാറ്റേണ്ടത് ബൈക്കിൻ്റെ എല്ലാ സാധനം എഞ്ചിൻ എന്താണ് അതിന് ബേസിക്കായിട്ട് അധികം വണ്ടികൾക്ക് എങ്ങനെയൊക്കെയാണു കേടുപാട് വരാറുള്ളത് എന്ന് എല്ലാവരും പഠിച്ചിരിക്കണം കാരണം അത് പഠിച്ചിരിക്കുന്നതുകൊണ്ട് ധാരാളം ഒരിക്കലും ഒരു അനാവശ്യമായ അറിവായിട്ടതു മാറുകയില്ല സ്വാഭാവികമായും അതുകൊണ്ട് വളരെയധികം ഉപകാരങ്ങള് ബൈക്കായാലും മറ്റു പല വാഹനങ്ങളും ഇതുപോലെ നാം വളരെയധികം നോക്കിയും കണ്ടും ചെയ്യേണ്ട പല കാര്യങ്ങളും ഇതിലുണ്ട് എന്ന് എന്നും ഇവിടെ പറയാനുണ്ട്